ഞാൻ കൂടുതല് എഴുതാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങളെന്ന് പറയുന്നത് ഇന്നത്തെ നമ്മുടെ ഈ സംസ്ഥാനത്തു വരുന്ന അതിക്രമിച്ച് വരുന്ന പീഡന കാര്യങ്ങള് പീഡന കേസുകള് പിഞ്ചു കുഞ്ഞുങ്ങളെ തൊട്ട് എഴുപത് വയസായിട്ടുള്ള മുത്തശ്ശിമാരെ വരെ ഈ യാതൊരു വിധ കണ്ണിച്ചോരയും ഇല്ലാണ്ട് അവരുടെ രതി സുഖത്തിന് വേണ്ടി ആളുകൾ പീഡിപ്പിക്കുന്ന ഒരവസ്ഥകളെ കുറിച്ച് ഒരുപാട് തവണ എഴുതാൻ ഞാൻ ആഗ്രഹിക്കുന്നുണ്ട് കാരണം ഈ ഒരു കാര്യം സമൂഹത്തോട് വിളിച്ചു പറയുവാൻ പലരും ഇന്ന് ഭയപ്പെടുന്നുണ്ട് കാരണം പറഞ്ഞ് കഴിഞ്ഞാൽ അവനെ സമൂഹം എങ്ങനെയാണ് നോക്കി കാണുന്നതെന്ന് ആലോചിച്ച് കൊണ്ട് അതിനാൽ പച്ചയായ ജീവിതം അവരുടെ ഈ ഇവരെ പീഡനത്തിനിരയാക്കുന്ന കുറ്റവാളികളുടെ പച്ചയായ ജീവിതം പച്ചയായ മുഖം തുറന്നു കാണിക്കുവാൻ ഞാൻ ഏറെ ആഗ്രഹിക്കുന്നു